ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ പല രീതിയിലുള്ള ഗെയിമും കാര്യങ്ങളൊക്കെയുണ്ട് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് ഇടയ്ക്കിങ്ങനെ വെറുതെയിരിക്കുന്ന സമയത്ത് അതായത് നമ്മളെ കാൻഡി ക്രഷ് ഇടയ്ക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കാറുണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടുമുതലേ ഉള്ള ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അതൊക്കെ ഞാൻ കളിക്കാറുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കാറുണ്ട് ക്ലാഷ് ഓഫ് ക്ലാൻസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഗെയിം പോലെയാണ് നമുക്ക് പുറമേനിന്ന് കാണുന്ന ആൾക്കാർക്ക് വലിയ മനസ്സിലാവാൻ ഒന്നും സാധിക്കാത്തൊരു ഗെയിമും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു കൊട്ടാരം ഉണ്ടാക്കുക അത് പൊളിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വരും അപ്പോൾ നമ്മളതിനെ ചെതുർ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിലുള്ളൊരു എന്താ പറയുക ഇപ്പോൾ ആ കൊട്ടാരത്തിന് എന്തൊക്കെ സുരക്ഷയാണോ വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു ടൈപ്പ് ക്ലാഷ് ഓഫ് ക്ലാൻസെന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിമാണ് അത് ഞാൻ ഇപ്പോൾ അങ്ങനെ കളിക്കാറില്ല ആദ്യമൊക്കെ കളിക്കാറുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അത് ഫോൺ മാറ്റിയത് കൊണ്ട് ആ ഗെയിം പോയി പിന്നെ പബ്ജി കളിക്കാറുണ്ട് പബ്ജിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പല വേർഷൻസൊക്കെ ഉണ്ടായിരുന്നു അത് ഇടയ്ക്കൊന്ന് ബാൻ ചെയ്തിരുന്നു അപ്പോൾ ആ ഗെയിം ഒക്കെ ഞാൻ കളിക്കാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് കളിക്കാറുള്ളാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ റിയാലിറ്റി ഗെയിമുകളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് പബ്ജി തന്നെയാണ്